ആ ഹലോ ആ ഗ്രീൻ സ്റ്റാർ ഹോട്ടലല്ലേ മുണ്ടൂര് ഉള്ളത് ആ എനിക്ക് ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ഫ്രൈയും വേണമായിരുന്നു ആ അതെ ഇപ്പക്കന്നെ ആ എത്രയാകും ആ ചിക്കൻ ചിക്കൻ ബിരിയാണി ഇല്ല കുഴപ്പമില്ല അതു മതി അതാ ബീഫ് ഫ്രൈ അതു മതി

അല്ല എനിക്ക് ഒരു എൻ്റെ ഒരു ഫ്രൻ്റ ഉണ്ട് അപ്പോൾ എക്സ്ട്രാ ഒരു ചിക്കൻ ബിരിയാണി കൂടി വേണം അപ്പം മൊത്തം രണ്ടെണ്ണം ആ രണ്ട് ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ഫ്രൈ ഒരു ബീഫ് ചില്ലിയും കൂടി ആയിക്കോട്ടെ എന്തായാലും അപ്പോൾ ഡെലിവറി എപ്പോൾ സമയം എത്ര സമയമാകും

ആ അഡ്രസ്സ് വേണ്ടേ ആ നിങ്ങൾ ആ എന്താണ് ആ മുണ്ടൂര് സ്കൂളില്ലേ മുണ്ടൂര് സ്കൂൾ കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ ഒരു വലത്തു സൈഡിലേക്ക് ഒരു റോഡുണ്ട് ആ അതു തന്നെ ആ കൂട്ടുപാത ആ കൂട്ടുപാതയിൽനിന്ന് വലത്ത് സൈഡിലേക്ക് പോയി ഒരു നാലാമത്തെ വീട് ആ അതു തന്നെ ഒരു വെള്ള പെയിന്റ് അടിച്ചില്ലേ ആ അതെ വീടന്നെ അപ്പോൾ ഡെലിവറി ചാർജ്ജ് ഉണ്ടോ എക്സ്ട്രാ ഇല്ല അല്ലെ ഒരു നാല് കിലോ മീറ്റർ കഴിഞ്ഞാലാണ് ഡെലിവറി ചാർജ്ജ് വരികയുള്ളുവല്ലേ സാധനം എല്ലാം അന്നന്നാൾ വെയ്ക്കുന്ന ഫുഡ് തന്നെയല്ലേ തലേദിവസത്തെ ഭക്ഷണം ഒന്നും കൊടുക്കുന്നില്ലല്ലോല്ലേ

ആ നമ്മൾ ഒരു വിശ്വസിച്ചിട്ട് ഓർഡർ ചെയ്യുമ്പോൾ അത് അറിയാം എന്നാലും ഇതിപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുകയാണല്ലോ ഇപ്പം ഇവിടെ ഭക്ഷ്യ വിഷ ബാധയൊക്കെയായിട്ട് മരിക്കുകയൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അത് ഷവർമ്മ അല്ല മൊത്തത്തിലൊന്ന് ചോദിച്ചുവെന്നു മാത്രം ഇല്ല അല്ലേ ആ ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടവിടുന്നു കുഴപ്പമൊന്നുമില്ല ഇല്ലയെന്നാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ചു ഞാൻ ചോദിച്ചുവെന്നു മാത്രം

അപ്പം മുണ്ടൂര് സ്കൂൾ കഴിഞ്ഞിട്ട് ആ കൂട്ട് പാതയിൽനിന്ന് ആ വലത്ത് സൈഡ് റൈറ്റ് സൈഡിലേക്ക് ആ വൈറ്റ് കളർ വീട് തന്നെ വൈകില്ലല്ലോല്ലേ വില അപ്പം എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ അതോ കൊടുക്കണോ അവരുടെ കയ്യിൽ കൊടുക്കണോ അതിഷ്ട്ം പോലെ ചെയ്യാമല്ലെ എന്തായാലും പൈസ എന്നാൽ അവരുടെ കയ്യിൽ കൊടുത്ത് വിടാം ഓക്കെ ഓക്കെ